വർഷങ്ങൾ കൊണ്ട് ഇന്ത്യൻ വിനോദവ്യവസായം എങ്ങനെയാണ് വികാസം പ്രാപിച്ചത് അപ്പോൾ വിനോദ സഞ്ചാരം അല്ലെങ്കിൽ വിനോദ വ്യവസായം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിനുള്ള നമ്മള സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മള സ്വന്തം നാട് വിട്ട് നടത്തുന്നൊരു യാത്രയാണ് നമ്മൾ വിനോദസഞ്ചാരം അല്ലെങ്കിൽ വിനോദ വ്യവസായം എന്നൊക്കെ പറയുന്നത് ഇതിപ്പം എല്ലാ ലോകത്തിലും വ്യാപമായി നടക്കുന്ന വ്യാപകമായി നടക്കുന്ന ഒരു പ്രധാന വ്യവസായം കൂടിയാണ് കാരണം വ്യവസായം എന്ന് പറയാൻ കാരണം ഇപ്പം എല്ലാവരും സ്വയം തൊഴിൽ വിട്ടിട്ട് ഇപ്പം പോവുന്ന സ്ഥലത്ത് ഇപ്പം ആഹാരം കഴിക്കുന്ന സ്ഥലത്തായാലും ഇപ്പം കറങ്ങാൻ പോകുന്ന സ്ഥലത്തായാലും ചെറിയ അവരുടേതായിട്ടൊള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി അതിപ്പം എല്ലാവർക്കും പ്രദർശിപ്പിച്ച് അവർ ഒരുപാട് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് അതാണ് ഞാൻ വ്യവസായം എന്ന് പറയുന്നത് വ്യവസായം കൂടി ആയിട്ട് വരുവാണെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ വിനോദ സഞ്ചാരം മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം അവർക്ക് ജോലിയോടുള്ള താൽപ്പര്യം പോയിട്ട് കൂടുതലും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുന്നത് നമ്മളീ വിനോദസഞ്ചാരം അല്ലെങ്കിൽ വിനോദ വ്യവസായത്തിന് കൂടിയാണ് പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളും ഉണ്ട് ആ നേട്ടങ്ങളെന്തെന്നു വെച്ചാൽ ഇപ്പം ചെയ്യുന്ന രീതിയിൽ വിനോദസഞ്ചാരം അല്ലെങ്കിൽ വിനോദവ്യവസായം കൊണ്ട് നമുക്ക് നല്ല നേട്ടങ്ങൾ എന്ന് പറയുന്നത് പല പല വിഭാഗത്തെ പറ്റി അറിയാൻ അല്ലേൽ പല ജന വിഭാഗത്തെപ്പറ്റി അറിയാനും അവരുടെ ജീവിത രീതികളെ പറ്റി അറിയാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും എല്ലാം നമുക്കീ വിനോദ സഞ്ചാരത്തിനെപ്പറ്റി അതുകൊണ്ട് നമുക്കൊരുപാട് ഉപയോഗങ്ങളും ഉണ്ട് അങ്ങനെയുള്ള ഉപയോഗങ്ങളും ഉണ്ട് പിന്നെ പറയുന്നത് വെച്ചാൽ ഇനി ജനപ്രീവി വിനോദ രൂപങ്ങളെപ്പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ പരമ്പരാഗത സാംസ്കാരിക കലാരൂപങ്ങളായ നൃത്തം സംഗീതം ഉത്സവാഘോഷങ്ങൾ കരകൗശല വസ്തുക്കൾ ഇതൊക്കെയാണ് പണ്ടത്തെ ഏതൊരു ഇന്ത്യക്കാരനും ഒരുപാട് കാണാനും ആഗ്രഹിക്കാനും ആസ്വദിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാരണമെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം പുതിയ പുതിയ രീതിയിലുള്ള ടെലിവിഷൻ ഷോകൾ ഡാൻസ് പാട്ട് അങ്ങനെയുള്ള രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെയാണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടം എന്നു പറയുന്നത് അപ്പം ഞാനീ പറഞ്ഞ രീതികളൊക്കെ തന്നെയാണ് ആളുകൾക്കിടയിൽ ഇപ്പം സ്വീകാര്യത ഉള്ളതും കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം പറഞ്ഞ ടി വി ഷോകൾ പിന്നെ മറ്റേ ഇത് ഡാൻസ് പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ കുറേ ഒരുപാട് സ്വീകാര്യത ഉള്ളതും ഇത് തന്നെയാണ് പിന്നെ നമ്മുടെ പണ്ടത്തെ വിനോദ രൂപങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ തെയ്യം ആഞ്ചന നൃത്തം കളമെഴുത്ത് ഇതൊക്കെയാണ് നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള കലാരൂപങ്ങൾ അല്ലെങ്കിൽ വിനോദരൂപങ്ങളെന്ന് പറയുന്നത് പക്ഷേ ഈ പറയുന്നതൊന്നും നമുക്ക് ഇപ്പം കാണാൻ സാധിക്കില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടം അതല്ല ഇപ്പം എല്ലാവർക്കും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യം ഒന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നതു തന്നെയാണ് കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ നമ്മളാഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കാണാൻ കിട്ടില്ല കാരണം ഇപ്പം അതിനെപ്പറ്റി അറിയാവുന്ന ഒരുപാടാൾക്കാർ കുറവാണ് പണ്ടൊക്കെയാണ് ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ ഒരുപാടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല കാരണം കുട്ടികളായാലും വലിയവരായാലും അവരിപ്പോഴത്തെ ജനറേഷനിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാണുന്ന ടി വി ടെലിവിഷൻ ഷോകളോ അതിനെപ്പറ്റി മാത്രമേ അവർക്കറിയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് ഇപ്പം കുട്ടികൾക്കായാലും പല രീതിയിലുള്ള മറ്റേ ഗെയിമുകൾ ഡാൻസ് പാട്ട് ഇതൊക്കെയാണ് ഇഷ്ടം അപ്പം ഞാൻ തന്നെ ഒരു ഉദാഹരണത്തിന് ഞാൻ തന്നെ പറയാം ഞങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്തായാലും കൂടുതലും നമ്മൾ കാണാൻ ഇൻട്രസ്റ്റിങ് ആവുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം പല രീതിയിലുള്ള ഡാൻസ് പാട്ടൊക്കെയാണ് പക്ഷേ ഈ നൃത്തവും പണ്ടത്തെ കലാരൂപങ്ങൾ നൃത്തം സംഗീതം അതൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് നമുക്ക് ബോറടിക്കും താൽപ്പര്യം കാണത്തില്ല കാരണം നമ്മള ജനറേഷൻ അതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പിന്നിപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ജനറേഷൻ എന്നു പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ അവരുടെ കഴിവ് അവരുടെ കഴിവ് തന്നെ അവർക്കിപ്പോൾ ഒരു പ്രായമാവുന്ന ഇപ്പം ആകുമ്പോൾ തന്നെ അവരെ കഴിവുകൾ അവർ പ്രദർശിപ്പിച്ചോണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെപ്പോലെ പണ്ട് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് അതിന്റെ കൂടെ നിന്ന് എന്തെങ്കിലും പറയാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളങ്ങനെയല്ല അവർ ചെറിയൊരു പ്രായത്തിൽ തന്നെ അവരുടെ കഴിവുകളൊക്കെ തെളിയിക്കാൻ തുടങ്ങുന്നതുകൊണ്ട് തന്നെ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടു തന്നെ അവർക്ക് ഓരോന്നിലും സപ്പോർട്ട് പാരൻസിനായാലും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് രീതികളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പണ്ടൊന്നും അങ്ങനെയല്ല അപ്പം ഇനി വരുന്ന കാലഘട്ടം ഒരുപാട് മാറ്റം ഇനിയും സൃഷ്ടിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ എനിക്ക് ഇതൊക്കെ തന്നെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അതായത് നമ്മുടെ വിനോദസഞ്ചാരം അല്ലെങ്കിൽ വിനോദവ്യവസായത്തെപ്പറ്റി പറയാനുള്ളതും ഇതൊക്കെ തന്നെയാണ്